ആ ഹലോ കഥകളി പഠിപ്പിക്കുന്ന ടീച്ചറാണോ ആ അത് എന്റെ ആ പഠിക്കാനായിരുന്നു എത്രാ എത്ര പിള്ളേരുണ്ട് അവിടെ ആ ഫീസ് എങ്ങനെയാ ആഴ്ച്ചയിൽ രണ്ട് ദിവസമോ ഏതൊക്കെ ദിവസമാണെന്ന് പറയാമോ ഉം എത്ര സമയം എടുക്കും ഒരു ദിവസം മൂന്ന് മണിക്കൂറുണ്ടോ ആ എത്ര ദിവസം കൊണ്ടിത് പഠിച്ച് തീര്ക്കാന് പറ്റും കംബ്ലീറ്റ് ചെയ്യാന് പറ്റും ആ ഉം ഉം അതിന് ഫീസ് എങ്ങനെയാണ് പഠിച്ച് തീരുന്നതിനോ ഒരു മാസത്തിന് എത്രയാ ഉം ആ ഉം ആ ആ നന്നായിട്ട് പഠിപ്പിക്കുമോ ഉം ആ ഡ്രസ്സ് ഈ ഫീസിന്റെ കൂടെ ഡ്രസ്സും കിട്ടുമോ ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് പേര് ഉം ഇത് എന്നെ പോലെത്തെ പിള്ളേരാ മൂന്നും ഉം ഉം ആ സമയം ഞങ്ങൾക്ക് ഇപ്പം അവധിക്കാലം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലേ ഉം വൈകിട്ട് നാല് വരെ ആ രാവിലെ ഒരു എട്ട് തൊട്ട് ഒമ്പത് പ പതിനൊന്ന് വരെ ഉം ഉം ഉം ഉം തുള്ളാന് വയ്യെ ഉം ഓട്ടന്തുള്ളലും അതിനെങ്ങനെയാ ഫീസ് ആ ഞങ്ങൾക്ക് കഥകളിയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് ടീച്ചറെവിടെയാ പഠിച്ചത് കലാമണ്ഡലം ആണോ എവിടെയാ ഓ ഉം ഇവിടെ എത്ര നാളായി ആ ആ ആ ഞങ്ങൾ എന്നാൽ അടുത്ത ആഴ്ച തൊട്ട് വന്നാലോ ആ ആം ആ അതൊക്കെ ആ ഉം ദക്ഷിണയ്ക്ക് എത്രയാ നിങ്ങളുടെ ഇത് ആ ശരി ഓക്കെ കാശ് പിന്നെ തരണോ അഡ്വാന്സ് ആയിട്ട് തരണോ അതോ ഉം കുറയ്ക്കുകേലെ ഫീസ് ആണോ ഫീസിന് ഫീസിനകത്ത് കുറവെന്തെങ്കിലും ചെയ്യുമോ അപ്പം ഡ്രസ്സിനും ഒത്തിരിയാകുകേലെ പൈസ ആ ഉം ഇപ്പം അവധിക്കാലം ആയതുകൊണ്ട് എന്നാൽ രാവിലെ വെക്കാം അല്ലേ ആ എന്നാൽ ഞങ്ങൾ അടുത്ത ആഴ്ച്ച തൊട്ട് ആ ഒന്നുകൂടെ വിളിച്ചേക്കാം ഇടയ്ക്ക് ആ ഓക്കെ ഇതാണ് എന്റെ നമ്പരെ ശരി ഓക്കെ